ഞാന് കോഴി കോഴി വളര്ത്തലാണ് ചെയ്തിരുന്നത് അപ്പോള് ഞാന് എനിക്കിപ്പോള് ഞാൻ എന്തെങ്കിലും അത്യാവശ്യഘട്ടത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോവേണ്ടി വന്നാലും ഞാന് അയൽ വക്കത്തെ ചേച്ചിയെ എല്പ്പിച്ചിട്ടാണ് പോവാറ് അപ്പോള് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മള് നോക്കുന്ന രീതിയിൽ അവർ നോക്കിക്കൊള്ളണമെന്നില്ല മിക്കവാറും രാത്രികളിൽ പട്ടികളൊക്കെ കയറി അഞ്ചാറ് കോഴികളെയൊക്കെ കൊന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട് അതുപോലെത്തന്നെ ഇപ്പം നമ്മൾ ക്ലീന് ചെയ്യുന്നതുപോലെ വളരെ നല്ല രീതിയിൽ ക്ലീന് അവര്ക്ക് ആ ഒരു പരിധിയുണ്ടല്ലോ ചെയ്യണതിന് അതുപോലെ ചെയ്യാൻ ക്ലീന് ചെയ്യാനൊന്നും സാധിക്കില്ല ഇപ്പം നമ്മള് ഡെയിലി അത് നല്ല രീതിയിൽ വൃത്തിയാക്കുകയും കൂടും അതുപോലെത്തന്നെ പരിസരവും ഒക്കെ നല്ലലന് നല്ല രീതിയിൽ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെത്തന്നെ കോഴികളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ആരോഗ്യസ്ഥിതി വിലയിരുത്തിയാല് അവര്ക്ക് അവശ്യമായ ഭക്ഷണവും ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്പം അതുപോലെത്തന്നെ ഇപ്പം നമ്മൾ ഏല്പ്പിക്കുന്ന ആൾ ചെയ്യണമെന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ